ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് എന്നെ കാണാൻ വേണ്ടി എൻ്റെ ഫ്രണ്ട്സുകൾ അഞ്ചു പേര് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവര് വരുന്ന കാര്യമെനിക്ക് തലേന്നേ അറിയാമായിരുന്നു അങ്ങനെ ഞാൻ ഒരു ഹോട്ടലിലേക്ക് അഞ്ച് മട്ടൻ ബിരിയാണി ഓഡര് കൊടുക്കുകയുണ്ടായി അപ്പോള് ഞാൻ പറഞ്ഞ സമയം പന്ത്രണ്ടരയാണ് അവരതിന് സമ്മതിക്കുകയും ചെയ്തു പന്ത്രണ്ടരയ്ക്കുതന്നെ എത്തിക്കാം എന്ന് അവർ പറയുകയും ചെയ്തു പറയുകയുണ്ടായി

അപ്പോള് അങ്ങനെ ഇരിക്കുമ്പോള് ഞാൻ പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കും അവര് ലൊക്കേഷനും സ്ഥലവും ചോദിച്ചു ലൊക്കേഷനും സ്ഥലവും പറഞ്ഞ് കൊടുത്തു മട്ടൻ ബിരിയാണിയെന്ന് പറയുകയും ചെയ്തു റേയ്റ്റ് കൂടുതലാണ് ഓക്കേ പന്ത്രണ്ടരയായിട്ടും പന്ത്രണ്ടേ മുക്കാലായി ഒരു മണിയായി ഒന്നരയായി രണ്ട് മണിയായിട്ടും രണ്ടരയായിട്ടും സംഭവം വീട്ടില് എത്തിയിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടര ആയപ്പോഴത്തേക്കും പന്ത്രണ്ട് ഒരു മണിയായപ്പോഴത്തേക്കും ഞാൻ ഡെലിവറി ബോയെ ഒന്ന് വിളിക്കുകയുണ്ടായി വിളിച്ചപ്പോള് നമ്പർ നോട്ട് റീച്ചബിളെന്നാ വന്നെ പിന്നെ ഒന്നും കൂടെ ട്രൈ ചെയ്തു നമ്പർ നോട്ട് റീച്ചബിളെന്നായി പിന്നെ ഒന്നരക്ക് വീണ്ടും ട്രൈ ചെയ്തപ്പോൾ സ്വിച്ച് ഓഫ് കാണിക്കുന്നു അപ്പോള് രണ്ടരയ്ക്ക് ഞാൻ ഡെലിവറി കമ്പനിയിലേക്ക് വിളിക്കുകയുണ്ടായി അവൻ പറയുകയുണ്ടായി പുതിയ ചെറുക്കനാണ് ഓര്ഡറെടുത്തത് അവന് സ്ഥലവും അറിയത്തില്ല ലൊക്കേഷൻ അയച്ചുകൊടുത്തായിരുന്നു പക്ഷേ അവൻ്റെ മൊബൈലിൽ ചാർജ്ജില്ലാത്തതുകാരണം അവനു വരാൻ പറ്റിയില്ല ലൊക്കേഷൻ അറിയത്തില്ല എന്ന് പറഞ്ഞു ഇപ്പോള് ആ ഓർഡർ കൊടുത്ത അഞ്ച് മട്ടൻ ബിരിയാണിയും തിരിച്ച് കമ്പനിയിലേക്ക് തിരിച്ച് ചെന്നിട്ടുണ്ട് ഹോട്ടലിലേക്ക് തിരിച്ച് പോയിട്ടുണ്ട് അപ്പോള് ഞാൻ പറഞ്ഞു എനിക്കിനി ഓർഡര് വേണ്ട അപ്പോള് അവര് പറഞ്ഞു തിരിച്ച് മാഡത്തിനെന്തെങ്കിലും രാത്രിക്ക് ഞങ്ങൾ വേറെന്തെങ്കിലും തരട്ടേന്ന് ചോദിച്ചു അതിന് പകരം ഞാൻ പറഞ്ഞു എനിക്കാവശ്യം ഉച്ചയ്ക്കായിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കായിരുന്നു പക്ഷേ നിങ്ങൾ ഡിലെ ആയി കിട്ടിയതുമില്ല അങ്ങനെ പാഴ്സല് തിരിച്ചുപോയി ഇപ്പോള് എനിക്കതിന് പകരമായിട്ട് രാത്രിക്ക് ഒന്നും വേണ്ട ഞാൻ ഓർഡർ ക്യാൻസൽ ചെയ്യുക എന്ന് പറഞ്ഞു അപ്പോള് അവർക്കത് വലിയ ഒരു നഷ്ടമായിപ്പോയി കാരണം അഞ്ച് മട്ടൻ ബിരിയാണിയായിരുന്നു അപ്പോള് അവര് പറഞ്ഞു ഞങ്ങളുടേതെല്ലാം പുതിയ ചെറുക്കനാണ് ഇത്ര ഇങ്ങനേക്കെയാണ് സംഭവിച്ചത് ബാലൻസില്ലായിരുന്നു അപ്പോള് ഞാൻ വഴി അറിയത്തില്ല ലൊക്കേഷൻ അറിയത്തില്ല പ്ലേസറിയത്തില്ലെന്നൊക്കെ പറഞ്ഞു അപ്പോള് ഞാൻ പറഞ്ഞു അത് എൻ്റെ കുറ്റമല്ല അവൻ വരുമ്പഴ്ത്തേക്കെല്ലാം ഉണ്ടോന്ന് മൊബൈലിലൊക്കെ ചാർജ്ജ് ഉണ്ടോന്ന് നോക്കണമായിരുന്നു ബാലൻസ് ഉണ്ടോന്ന് നോക്കണമായിരുന്നു അറിയത്തില്ല എനിക്ക് ഒന്ന് ക്ലിയറായിട്ട് നേരത്തെ തന്നെ ചോദിക്കണമായിരുന്നു അല്ലെങ്കില് കമ്പനി ആരോടെങ്കിലും ചോദിക്കണമെന്ന് ഞാൻ പറയുകയുണ്ടായി അപ്പോള് അവര് പറഞ്ഞു എന്തെങ്കിലും കുറച്ചിങ്ങനെ പേ ചെയ്യാൻ ഞാൻ പറഞ്ഞു ഞാനെടുക്കാത്ത സാധനത്തിന് ഞാനൊരിക്കലും പേ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു അപ്പോഴവർക്ക് നഷ്ടമാണെങ്കില് ഓക്കേ അണ്ടർസ്റ്റാൻഡബിളാണ് നഷ്ടം വന്നത് എൻ്റെ കുറ്റമല്ല പക്ഷെ എനിക്ക് രാത്രിയിലേക്ക് ഒന്നും വേണ്ട റീപ്ലേസ് വേണ്ടെന്ന് ഞാൻ പറയുകയും ചെയ്തു പേ ചെയ്യത്തില്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു അങ്ങനെ ഓർഡർ ക്യാൻസലാക്കുകയും ചെയ്തു